ജോലിക്ക് പുറത്തുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ബൊലേറോ ആണുള്ളത് അപ്പോൾ ഞാനതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ യാത്രപോകും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഒരു ഹിമാലയ ഉണ്ട് ഹിമാലയില് ഞാൻ ഓരോ ട്രിപ്പുകള് ഇപ്പോൾ കന്യാകുമാരിക്ക് ഞാൻ ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ടേ ഉളളൂ അപ്പോൾ അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം ഡ്രൈവെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നുപറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തെക്കാളും സ്നേഹിക്കുന്ന ഒന്നാണ് ഈ ഡ്രൈവിങ്ങ് എന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോൾ എൻ്റെ ജോലിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പോൾ ഞാൻ അവിടെ ഇടയ്ക്ക് ലീവ് എടുത്തിട്ടൊക്കെയാണ് ഞാൻ പോവുക അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടുകയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാനെൻ്റെ എനിക്ക് എൻ്റെ പ്രൊഫഷനലിന് അതായത് പ്രൊഫഷണലായിട്ടുള്ള ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനീ ഡ്രൈവിങ്ങ് എന്നു പറഞ്ഞ് കഴിഞ്ഞാല് അത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടുതലും ഞാനെൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ യാത്ര പോവാറ് ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ് കാരണം ഒരു ചെറിയൊരു മോനുണ്ട് അപ്പോൾ അവനേയും കൂട്ടിയിട്ട് എനിക്കങ്ങനെ പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാന് കൂടുതലായിട്ടും വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാനങ്ങനെ പോകും ബൈക്കിലൊക്കെ ഞാൻ ഒറ്റക്കാണ് പോകാറ്